നമ്മുടെ നിത്യജീവിതത്തിൽ കായിക വിനോദങ്ങളുടെ പ്രാധാന്യം വളരെയാണ് പ്രത്യേകിച്ച് ഇന്ത്യയിലെ കായിക വിനോദങ്ങൾ പ്രോത്സാഹിപ്പിക്കുവാൻ വളരെ അധികം കാര്യങ്ങൾ ഇപ്പോൾ ചെയ്യുന്നുണ്ട് നമ്മുടെ സ്കൂൾ തലത്തിൽ മുതൽ അതിനെ പ്രോൽസാഹിപ്പിക്കുന്നുണ്ട് അത് ചെയ്യുവാനുള്ള ക്രമീകരണങ്ങൾ സർക്കാർ ചെയ്തു കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ നിത്യ ജീവിതത്തിൻ്റെ ഭാഗമാക്കുന്നത് മൂലം ഈ കായിക വിനോദങ്ങൾ ഏർപ്പെടുന്നത് മൂലം നമ്മുടെ ശാരീരികവും മാനസികവുമായ വളർച്ചയ്ക്ക് വളരെ അധികം നല്ലതാണ് കാരണം ജീവിതശൈലീ രോഗങ്ങൾ ഏറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണിത് നമ്മൾ നമ്മുടെ ചുറ്റുപാടിൽ നോക്കി കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളിൽ കൂടി പോലും ഈ ജീവിതശൈലീ രോഗങ്ങൾ കൂടുതലായിട്ട് വരുന്നു കാരണം എന്തെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ അവർ കായികമായിട്ടുള്ള ഒരു വിനോദങ്ങളിലും ഏർപ്പെടാതിരിക്കുന്നത് മൂലം അവരുടെ ശരീരം അവർ വ്യായാമങ്ങളിലൂടെയോ മറ്റൊന്നുമില്ലാതെ ഒരു മൊബൈലിൻ്റെ മുൻപിലൊ അല്ലങ്കിൽ ഒരു ടി വിടെ മുൻപിലോ അവർ ജീവിതം ആസ്വദിക്കുമ്പോൾ ഇല്ലാതാകുന്നത് അവരുടെ ആരോഗ്യമാണ് നമ്മളുടെ ഓരോരുത്തരുടെ ആരോഗ്യമാണത് നഷ്ടപ്പെടുത്തുന്നത് ഈ കായിക വിനോദങ്ങളിലൂടെ നമ്മുടെ ആരോഗ്യം വീണ്ടെടുക്കുവാൻ നമുക്ക് സാധിക്കും അതിന് നമ്മൾ ഈ സ്കൂൾ തലം മുതലേ അതിന് ഉള്ള ക്രമീകരണങ്ങൾ ചെയ്ത് കൊടുക്കണം അതെങ്ങനെയാണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ അത് സർക്കാറതിന് മുൻകയ്യെടുത്ത് കൊണ്ട് മറ്റ് രാജ്യങ്ങളിലെ പോലെ മറ്റ് രാജ്യങ്ങളിലൊക്കെ കായിക വിനോദങ്ങളിലും വ്യായാമവും ചെയ്തിട്ടാണവർ ഓഫീസിൽ പോലും കടന്ന് പോകുന്നത് കാരണം അത്രക്ക് പ്രാധാന്യം അവരുടെ നിത്യജീവിതത്തിൽ ഈ കായികവിനോദങ്ങൾക്കും വ്യായാമങ്ങൾക്കും ഉണ്ട് അതുകൊണ്ട് അവർ ആ സമൂഹം ആരോഗ്യമുള്ളതാണ് അവരുടെ കുടുംബം ആരോഗ്യമുള്ളതാണ് നമുക്ക് ആരോഗ്യമുണ്ടെങ്കിൽ മാത്രമേ നല്ലൊരു സമൂഹം കെട്ടിപ്പടുക്കുവാൻ സാധിക്കുകയുള്ളൂ അതിന് ഈ കായിക വിനോദങ്ങൾ വളരെ പ്രാധാന്യമാണ് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും അതിന് വേണ്ട തയ്യാറെടുപ്പുകൾ ഇപ്പപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് അറിയാനിടയായിട്ടുള്ളത് അത് അങ്ങനെയാണ് നമ്മൾ മറ്റ് മാധ്യമങ്ങളിലൂടെയൊക്കെ നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് ഇതിനെ പ്രോത്സാഹിപ്പിക്കാൻ എങ്ങനെ പ്രോത്സാഹിപ്പിക്കാം ഇതിന് വേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് വാർഡ് തലം മുതൽ ഇങ്ങനെ ക്ലാസ്സുകളും അതിനുള്ള പഠന സംവിധാനങ്ങളും ചെയ്ത് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് ഈ കാലഘട്ടത്തിൽ നമുക്ക് നല്ലൊരു സമൂഹം കെട്ടി പടുക്കണമെങ്കിൽ കായിക വിനോദങ്ങളിൽ ഏർപ്പെടുക അതുപോലെത്തന്നെ കുട്ടികളിലും ഇത് ശീലമാക്കുക അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു സമൂഹത്തിൽ സമൂഹം കെട്ടിപ്പടുക്കുവാൻ ആരോഗ്യമുള്ള സമൂഹം കെട്ടിപ്പടുക്കുവാൻ ഇടയാകത്തുള്ളൂ